പണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോ ആയിരുന്നു അതും റേഡിയോ ഈ പാട്ട് ചലച്ചിത്ര ഗാനങ്ങളെന്നാണ് പറയുന്നത് അതു കേട്ട് അത് കേൾക്കുന്നതിനെക്കൊണ്ട് എല്ലാവരും റേഡിയോടെ ചുറ്റും കാവലിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ചലച്ചിത്ര ഗാനത്തിൻ്റെ സമയം ടീ വി കാണാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ ടീ വി ഒന്നും ഇല്ല അന്ന് എത്രയോ എത്രയോ വീടുകൾ താണ്ടി ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും അന്നത്തെ ആ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ടീ വി ഉള്ളത് അത് ഞായറാഴ്ച്ച വൈകിയിട്ട് നാലു മണിക്കാണ് ടീ വിയുടെ സമയം ദൂരദർശൻ മാത്രമേ ഉള്ളു അന്നു ദൂരദർശൻ്റെ ചുവട്ടിൽ പോയിരുന്ന് എല്ലാവരുംകൂടെ എത്രയോ പേരാണ് ഇന്ന് തീയറ്ററിൽ കാണുന്നതുപോലെ ഒരു ഒരു തിരക്കും എല്ലാം അവിടെ അന്ന് ആ ഒരു വീട്ടിൽ കാണും എല്ലാവരും കൂടെ കുത്തിയിരുന്ന് ടീ വി കണ്ട് സന്തോഷമായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു പിരിയുന്നൊരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെ അല്ല ഇന്ന് എല്ലാവരുടെയും വിരൽതുമ്പിൽ മൊബൈലുണ്ട് മൊബൈലിൽ നമുക്ക് എന്തു വേണമെങ്കിലും കാണാം വീഡിയോ കാണാം പാട്ടു കേൾക്കാം സമയം സമയം പോകാൻ ഇതിലും വലിയൊരു ഉപാധി നമ്മളെ ഇല്ല അതു നമ്മളെ അലസരാക്കുന്നതിനും അലസരാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിനെവരെ മന്തീഭവിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ച്ചപ്പാട് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതു സമയം വേണമെങ്കിലും നമുക്ക് മൊബൈലിൽ നമുക്കെന്ത് എന്ത് വീഡിയോ വീഡിയോകൾ കാണാം യൂട്യൂബിൽ ഇന്നത്തെ കൂടെ കുട്ടികൾക്കാണെങ്കിൽ എപ്പോഴും യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെല്ലാം വിനോദ ഉപാധികൾ കിടക്കുകയാണ് പഠിക്കുവാനുള്ള സമയവും അവർക്ക് അതുവഴി നഷ്ടപ്പെടുന്നുണ്ടെന്ന് വേണം പറയാൻ ഈ ഈ വിഡിയോകൾ കാണുന്നതുവഴി നമുക്ക് നമ്മളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് പാട്ട് പാട്ട് പാട്ട് കേൾക്കുന്നത് നമുക്ക് മനസ്സിന് വളരെ ആനന്ദകരമായൊരു അവസ്ഥയാണ് പാട്ട് കേൾക്കാം പിന്നെ ഒരു പക്ഷെ പക്ഷെ ഇന്നത്തെ കുട്ടികളൊക്കെ ഹെഡ്സെറ്റ് വച്ചൊക്കെ പാട്ട് കേൾക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അത് അവരുടെ തലച്ചോറിനെയും തലവേദന ഉണ്ടാക്കുന്നതിന് കാരണമാണ് തലച്ചോറിലെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള മാറുന്നുണ്ട് പണ്ട് റേഡിയോയിലൊക്കെ പാട്ട് കേക്കുമ്പോൾ ദൂരെ ഇരുന്നായിരുന്ന് കേൾക്കുന്നത് അന്ന് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ യേശുദാസിൻ്റെ മനോഹരമായ ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നത് മുഴുവൻ റേഡിയോയിലൂടെ ആയിരുന്നു എന്ത് ഭംഗിയായിരുന്നു സത്യം പറഞ്ഞാൽ എത്ര സുന്ദരമായൊരു കാലമായിരുന്നു അതെന്ന് അപ്പം അപ്പോൾ തോന്നുന്നുണ്ട് എല്ലാവരും കാത്തിരുന്ന് കാത്തിരുന്ന് കേൾക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രതേക സുഖം ഉള്ള ഒരു കാലമാണ് പക്ഷെ ഇന്നത് നമ്മളാഗ്രഹിക്കാത്തത് നമ്മുടെ വിരൽതുമ്പിൽ കിട്ടുമ്പോൾ അമിതമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് വേണമെങ്കിലും പറയാം ടീ വി കാണുന്നത് ആണെങ്കിൽ തന്നെ ഇന്ന് എത്ര എത്ര ചാനലുകളാണ് ഒരിക്കലും അന്നൊക്കെ നമുക്ക് ഒരു ചാനൽ മാത്രമേ ഉള്ളു ദൂരദർശൻ അത് ഞായറാഴ്ച്ച നാലു മണിക്ക് അതിനകത്ത് ആകെയുള്ളൊരു സിനിമയെന്ന് പറയുന്നത് അത് കാണാനെക്കൊണ്ട് എല്ലാവരും മാതാപിതാക്കളുടെ അനുവാദം മേടിക്കാൻതന്നെ വലിയൊരു ടാസ്ക്കാണ് അവരോട് അനുവാദം രാവിലെതൊട്ട് പള്ളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ഒടനെ തുടങ്ങും ഇച്ച് ടീ വി കാണാൻ പൊയ്ക്കോട്ടെ ടീ വി കാണാൻ പൊയ്ക്കോട്ടേന്ന് ചോദിച്ച് ചോദിച്ച് ചോദിച്ച് അവരോ അവരിൽ നിന്ന് അനുവാദം മേടിച്ചതിന് പോയി അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ടീ വി കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു ആ ഒരു ബാല്യം ഒന്നും ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടത്തില്ല കാര്യമെന്നു വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ ഈ കോവിഡ് കാലത്ത് പിന്നെ എല്ലാർവരുടെ എല്ലാ കുട്ടികളുടേയും കയ്യിൽ മൊബൈലുണ്ട് മൊബൈല് കോവിഡ് കാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം മൂലമാണ് എല്ലാ കുട്ടികളുടെ കയ്യിലും ഇന്ന് മൊബൈലെത്തിയത് അത് അവർക്ക് ഇന്ന് ഇപ്പോൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവരുടെ വിരൽതുമ്പിൽ അവർക്ക് പാട്ടുണ്ട് അവർക്ക് പാട്ട് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ട് അതുപോലെതന്നെ അവർക്ക് വീഡിയോ കാണാനുള്ള സാഹചര്യം ഉണ്ട് അത് അത് ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് മൊബൈലിൻ്റെ ഉപയോഗം അമിതമായിട്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നും ഉണ്ട് അതൊക്കെ പറയാതിരിക്കാനും പറ്റത്തില്ല പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ കാണുക എന്നതിലുപരി ആരോഗ്യമുള്ളൊരു തലമുറയാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിട്ടുള്ളത്